ഇപ്പോൾ ഇന്ത്യയിലെ ആ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഭക്ഷണസാധനങ്ങളാണ് അവർ ദൈനം ദിനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളുടെ കേരളത്തിൽ തന്നെ നമുക്ക് ബ്രേക്ക് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പവും മുട്ടക്കറിയും ഇല്ലെങ്കിൽ പുട്ടും കടലയും പലരീതിയിലും നെയ് റോസ്റ്റ് ഇല്ലെങ്കിൽ മസാല ദോശ അങ്ങനത്തെ പലരീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കേരളക്കാർ ഉപയോഗിക്കുന്നത് പുറം നാട്ടിലേക്കൊക്കെ പോയിക്കഴിഞ്ഞാൽ അവർ ഫ്രൈഡ് റൈസ് മന്തി അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരീതിയിലുള്ള മസാലകളും പല രീതിയിൽ വൃത്തിഹീനമായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാലും പലസ്ഥലങ്ങളിലും വൃത്തിഹീനമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഒക്കെയാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അതായത് നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും കുടുതലായിട്ടും ചോറ് ഉപ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ചോറാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഒരു അരിഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അരി ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെയൊക്കെ മൈൻ ആയിട്ട് വേറെ രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ വിവിധ തരം മസാലകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ചിക്കൻ കറിക്ക് ആണെങ്കിൽ ചിക്കൻ മസാല സാമ്പാർ പൊടിക്ക് സാമ്പാറിന് ആണെങ്കിൽ സാമ്പാർ മസാല അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇന്ത്യയിൽ പലസ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്